ഇത് കോഴിക്കോട് റെൻറ്റ് കമ്പനി അല്ലെ ആ ഞങ്ങൾ കോയമ്പത്തൂരിന്ന് കുറച്ച് പേര് വരുന്നുണ്ട് കുറച്ച് ആൾക്കാര് വരുന്നുണ്ട് ഒര് പത്ത് ദിവസത്തേക്ക് ഒര് പത്ത് ബൈക്ക് വേണായിരുന്നു ആ അത് അല്ല ഞങ്ങള് ഒര് പത്ത് ദിവസത്തേക്ക് എത്ര രൂപ പേയ്മെൻറ്റ് ആവും ആയിരിക്കും അല്ല നോർമൽ ടൈപ്പ് വണ്ടി മതി ഞങ്ങക്ക് ആ ഭാഗത്ത് ഫുള്ള് ഒന്ന് കറങ്ങാൻ ആയിട്ടാ ഏതാ ഡെയിലി തൗസൻഡ് ഫൈവ് ഹണ്ട്രഡോ ട്വൻറ്റി ഫോർ ഹവർ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് അപ്പോൾ ഞങ്ങക്ക് ഒരു പത്ത് പേര് വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് ബൈക്ക് വേണം ആ ഇത് ഇപ്പോൾ എവിടെ വന്നാൽ നിങ്ങളെ കാണാൻ പറ്റും ആ ആ ഓക്കെ ആ ആ എന്നാൽ ഞാൻ ഒരു പതിനഞ്ചാംതീ പതിനാറാംതീ ഒക്കെ ആകുമ്പോളത്തേനും ഞാൻ നിങ്ങളെ വന്നിട്ട് കോൺടാക്ട് ചെയ്യാ ആ ഡേറ്റ് ആവുമ്പത്തേനും ഞാൻ വിളിക്കാം ഞങ്ങള് കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത് കുറച്ച് ലോംഗിന്നാ വരുന്നത്

ആ ഓക്കെ വേറെ കാര്യായിട്ട് ഒന്നും അറിയാൻ ഇല്ല ഞങ്ങൾ എന്തായാലും ഒര് പതിനാറാംതീ പതിനഞ്ചാംതീ ഒക്കെ ആവുമ്പത്തേനും വന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം ആ ഞങ്ങള് നേരിട്ട് ഒന്ന് മീറ്റ് ചെയ്തോളാം കോയമ്പത്തൂരിൽ നിന്ന് ഇല്ല ഞങ്ങൾ ഡയറക്റ്റ് എത്തിക്കോളാം കോഴിക്കോട് എത്തിക്കോളാം ആ ഇല്ല അത് ഒന്നും വേണ്ടി വരില്ല ആ ഞങ്ങള് ഡയറക്റ്റ് കോഴിക്കോടിന്ന് വന്നോളാം ഞങ്ങള് ട്രെയിനിനാണ് വരുന്നത് ആ പത്ത് വണ്ടി ആ ഓക്കെ ഓക്കെ ഇട്ടോളൂ ആ ഓക്കെ ഇട്ടോളൂ ആ ഓക്കെ ഞാൻ വിളിച്ചോളാം നിങ്ങളെ